ഞങ്ങളുടെ മാതാപിതാക്കളെ എസ് എസ് എൽ സി കോളിഫിക്കേഷൻ ആണ് അപ്പോൾ അവരുടെ ചെറുപ്പകാലത്തിൽ എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ആയിരുന്നു അപ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും അന്നത്തെ സൗകര്യങ്ങൾ അനുസരിച്ചു അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല അവരുടെ മാതാപിതാക്കളായാലും ദിവസേന ജോലി ചെയ്തു അന്നന്നത്തേക്ക് വേണ്ടിയുള്ള വേതനം കണ്ടെത്തിയിരുന്നവർ ആയിരുന്നു അതുപോലെ നാല് മക്കളും നാല് മക്കളുള്ളവർ ആയാലും അവർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കാനുള്ള ആവശ്യമായ പൈസയൊ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല കുട്ടികൾ തന്നെ ആയിരുന്നു അധ്വാനിച്ചു അധ്വാനിച്ചു അന്നത്തേക്ക് വേണ്ടി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് അതുപോലെ ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് അതിന് ഒപ്പം തന്നെ വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യം കൂടെ ഉണ്ടായിരുന്നില്ല എന്ന അന്നത്തെ പോലെ അല്ല ഇന്ന് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ നമുക്ക് ആണെങ്കിൽ തന്നെ അവർ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം തരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എത്ര അധ്വാനിച്ചു ആയാലും നല്ല വിദ്യാഭ്യാസം നേടണം എന്നത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരാറുണ്ട് നന്നായിട്ട് പഠിക്കാനും പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അന്ന് തന്നെ കുട്ടികൾ സ്കൂളിൽ പോയാൽ തന്നെയും അവർക്ക് അവിടെ ആവശ്യത്തിന് ഉച്ചഭക്ഷണം ലഭിക്കില്ലായിരുന്നു അതുകൊണ്ടു തന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാൻ ഇല്ലാത്തതു കൊണ്ട് തന്നെയും അതുപോലെ പോകാനുള്ള സൗകര്യക്കുറവ് മൂലം ഒക്കെ അന്ന് വിദ്യാഭ്യാസം ആവശ്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യവായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പോകാനും ഇപ്പോൾ കോളേജിൽ പോകാനുള്ള ഗതാഗത സൗകര്യമായാലും മറ്റു കാര്യങ്ങൾ ആയാലും പഠനത്തിന് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവിശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരാറുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഇന്നും ഇന്നു നമുക്ക് പഠനത്തിന് ആവശ്യമായിട്ട് വീട്ടുകാർക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റു ലോണുകളോ ലോണുകൾ അതുപോലെ പലരും ഇതിന് വേണ്ടിയിട്ടുള്ള സഹായം സഹായം ചെയ്യാറുണ്ട് പഠിക്കാൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം സഹായങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ഇന്ന് നമുക്ക് ആവിശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം പഠിക്കാൻ ഉള്ള സാഹര്യം സാഹചര്യം വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവർ അത് കണ്ടു സഹായിക്കാറുണ്ട് ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള അതൊക്കെ കുട്ടികൾക്ക് കിട്ടാറുണ്ട് ഇന്ന് അപ്പോൾ ഇന്നത്തെ കാലത്താണ് അവർ പഠിച്ചിരുന്നതെങ്കിലും അവർക്കും ഇപ്പോൾ നല്ലൊരു ജോലി വാങ്ങിക്കാനും എല്ലാത്തിനും സാധിക്കുമായിരുന്നു ഇന്ന് നമുക്ക് എന്തൊക്കെ ഇല്ലെങ്കിലും ഒരു കുട്ടിക്ക് ആവശ്യമായുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടു തന്നെ ഇന്ന് ഏകദേശം കുട്ടികൾക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം അവസരം ഉണ്ട് കൂടാതെ അന്ന് അന്ന് ഇപ്പോൾ നമ്മുടെ പേരെൻസ് ആയാലും അവർക്ക് നമ്മുടെ ഗ്രാൻഡ് പാരെൻസ് ആയാലും അവർ കൂടുതലും അവർ സ്വന്തമായിട്ടാണ് തൊഴിൽ കണ്ടെത്തി തൊഴിൽ കണ്ടെത്തി ജീവിച്ചിരുന്നത് അവർ കൂടുതലും ഭക്ഷണം ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലും ജോലിക്ക് പോയിരുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഫുഡ് അന്ന് ഒരു നേരം ഫുഡ് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് അവർ അതിനാണ് മുൻഗണന കൊടുത്തിരുന്നത് വസ്ത്രമില്ല ഇപ്പോൾ സ്കൂളിൽ പോവാൻ ആയാലും ഒരു ഡ്രസ്സ് ഒക്കെ ഒരു ഡ്രസ്സൊക്കെ ആയിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഇന്ന് അങ്ങനെ അല്ല എന്തൊക്കെ ഇല്ലെങ്കിലും മാതാപിതാക്കൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഇപ്പോൾ യൂണിഫോം ആയാലും നമുക്ക് സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് ആണെങ്കിലും എന്താണ് സ്കൂളുകളിൽ നിന്ന് യൂണിഫോമൊക്കെ ഫ്രീ ആയിട്ടായാലും കൊടുക്കുന്നുണ്ട് ഇന്ന് കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ട് പതിനാല് വയസ്സുവരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്നുണ്ട് അപ്പോൾ അപ്പോൾ അവർക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനുള്ള അവസരം ഇല്ലെങ്കിൽ തന്നെയും അവർ സ്കൂളുകളിൽ നമ്മളെ ഗവൺമെൻ്റിൻ്റെ ഗവൺമെൻ്റിൻ്റെ ഇതിലും അൺഎയിഡഡ് ആയിട്ടാണെങ്കിലും കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നിർബന്ധവും അതുപോലെ ഇപ്പം ഗവൺമെൻ്റിൻ്റെ ഇതിൽ ആണെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസമാണ് ഇപ്പം നൽകികൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും നമുക്ക് ഗവൺമെൻ്റിൽ നിന്ന് തന്നെ ലഭിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടത്തേന്നും ഒരുപാട് മാറ്റം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മടെ ഈ സ്ഥിതിയിലും മാറ്റം വന്നിട്ടുണ്ട് നമ്മടെ ലൈഫ് സ്റ്റയില് മാറിയിട്ടുണ്ട് അതുപോലെ ആവിശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്